കോഴി വളർത്തുന്നതിന് ഇപ്പോള് ഒരുപാട് രോഗം അവർക്ക് ഇങ്ങനെ രോഗങ്ങളുണ്ടാകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് മരുന്നുകള് പഞ്ചായത്തീന്നും ബ്ലോക്കീന്നും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോള് അത് വച്ച് അതുപോലെ മരുന്നുകള് പിന്നെ മെഡിക്കൽ സ്റ്റോറില്നിന്നൊക്കെ മരുന്നുകള് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മള് അവരുടെ തീറ്റയിലൊക്കെ ഇട്ട് കൊടുത്ത് ചെയ്യുക അത് ചെയ്തില്ലെങ്കില് നമ്മളുടെ ആ ഒരു ബിസ്നെസ്സായിട്ട് നടത്തുന്നവർക്ക് അത് മൊത്തത്തില് നഷ്ടത്തില് കലാശിക്കും പിന്നെ മൃഗങ്ങളെ സംബന്ധിച്ചാണ് ച്ചി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മൃഗാശുപത്രികളുണ്ടല്ലോ അനിമൽ ഹസ്ബൻട്രി ഉണ്ട് അപ്പോള് ആ മൃഗാശുപത്രി പോയി ഡോക്ടറുമായി കോണ്ടാക്റ്റെയ്ത് അതിനുള്ള പരിഹാരങ്ങളവര് പറഞ്ഞുതരും മരുന്ന് എന്താണെന്നുവച്ചാല് അവര് ചെയ്യും തീരെ നിവർത്തില്ലാത്ത സമയത്തവിടുന്ന് ഡോക്ടേഴ്സ് വന്ന് മൃഗങ്ങളെ നോക്കുന്നുണ്ട് അങ്ങനെ ചെയ്യും